വർഷാരംഭത്തിൽ നമ്മൾ കലണ്ടറുകൾ മേടിക്കും അത് ബാങ്കുകളിൽ നിന്ന് അല്ല മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ഇപ്പം പള്ളികളിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനത്തൊള്ള നല്ല നല്ല കളണ്ടറുകൾ കാരണം നല്ല കലണ്ടർ നോക്കി പ്രത്യേകിച്ചും ക്രൈസ്തവരായ ഞാൻ ഒക്കെ അല്ലേ നമ്മൾ ഒക്കെ പിന്നെ ഡേറ്റ് മാത്രം നോക്കുള്ളു അല്ലാണ്ട് അതിനകത്ത് പിന്നെ കുട്ടികളുടെ സ്കൂളിൻ്റെ അവധികൾ അവധി ഉണ്ടോ ആ ഇത് രണ്ടും നോക്കുള്ളൂ അതിൻറ്റ അപ്പുറത്തേക്ക് ഇല്ല കലണ്ടറ്കൾ ഉപയോഗിക്കേല പിന്നെ അത് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല ഡേറ്റ് പറയണം കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടോ അവർക്ക് അവധി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അപ്പം ഈ കലണ്ടറേൽ ഈ കിട്ട് കാണുന്ന ഇത് ഏതെങ്കിലും ഒരു നല്ല കലണ്ടർ അല്ലാണ്ട് മറ്റ് മതങ്ങളുടെയോ അല്ല മറ്റ് മതസ്സ്ഥരുടെയോ പടങ്ങൾ വെച്ചുള്ള കലണ്ടറുകളോ അല്ലെങ്കിൽ എന്നതാണ് മറ്റ് അവരുടെ സ്വാമിമാരുടെ കലണ്ടറുകളോ അങ്ങനെയൊന്നും സാധാരണ ക്രിസ്ത്യാനി വീട്ടിലല്ലേ ക്രൈസ്തവ വീട്ടിൽ ഉപയോഗിക്കാറില്ല കാരണം ഏശുവിൻ്റ കലണ്ടർ അല്ലെങ്കിൽ ആരുവോള്ള കലണ്ടറൽ കിട്ടും ഇപ്പം പള്ളീന്ന് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെ നല്ല നല്ല നമ്പറകൾ അടിച്ചുള്ള സാധാരണ കലണ്ടറ്കൾ കിട്ടുമ്പോൾ എല്ലാവർക്കും താല്പര്യം അതാണ് കാ മേടിച്ച് വെക്കാനും വീട്ടിൽ ഇടാനും അത് കാണാൻ ഒക്കെ അതാണ് താല്പര്യം അല്ലാണ്ട് മറ്റ് കലണ്ടറിലേക്ക് സാധാരണ വിശ്വാസികളായ ഒരു വ്യക്തികളും പോവുകേല ഇത് പ്രതിമാസ കലണ്ടറ് എന്ന് പറഞ്ഞാൽ ആ കലണ്ടറൊക്കെയാണ് സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് അത് അല്ലാണ്ട് അതിൻ്റെ കൂടുതൽ അപ്പുറത്തേക്ക് ഒരു പിച്ചറിൻ്റെ ഒരു കളണ്ടറോ അല്ലെങ്കിൽ ഒത്തിരി കലണ്ടറുകളൊ ഒന്നും തൂക്കി ഇടില്ല കാരണം ഒത്തിരി കളണ്ടർ തൂക്കിയിടേണ്ട ആവശ്യോം ഇല്ല അത് എടുക്കണ്ടേൻ കാര്യം ഇല്ല അതുകൊണ്ട് സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പള്ളീന്ന് കിട്ടുന്ന അണെങ്കിൽ ആ കലണ്ട് മാത്രം അല്ലെങ്കിൽ വലിയ ബാങ്ക്ന്ന് കിട്ടുന്ന കലണ്ടറാണ് അത് മാത്രം അല്ലാണ്ട് എല്ലാ കലണ്ടറുകളും അങ്ങനെ ഉപയോഗിക്കില്ല കാരണം നമുക്ക് അതിന് വലിയ പ്രാധാന്യം വരുന്നു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തെ അല്ലേ ഓരോ ദിവസത്തെയോ അങ്ങനെ കാര്യങ്ങളോ നോക്കുന്നുള്ള ഡേറ്റ് നോക്കാൻ അവധി ഉണ്ടോ പിന്നെ ബൈബിളി സംബന്ധമായൻ്റെ ഓരോ ദിവസവും കിട്ടുന്ന ബൈബിൾ ഭജനം അതോരോ ദിവസത്തേതാ അത് നോക്കിയിട്ട് അത് പഠിക്കുന്നു അല്ല അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൽന്നും അതുപോലെ ഉപകാരമുള്ള കാര്യങ്ങളിൽ ഇല്ലാത്ത കലണ്ടറുകളൊന്നും സൂക്ഷിക്കാറില്ല അല്ലെങ്കിൽ അത് മേടിച്ച് വെക്കാറില്ല